അച്ചടിച്ച പുസ്തകങ്ങൾ വായിക്കുകയാണെങ്കിൽ നല്ലതാണ് അതൊരു നൊസ്റ്റു ഫീലാണ് നമ്മുടെ പഴയകാലത്തെ ഓർമ്മകൾ നമുക്ക് അടിവരയിട്ട് നമുക്കിഷ്ടമുള്ള വാക്കുകൾ കുറിക്കാം അങ്ങനെയുള്ള ബുക്കുകൾ വായിക്കുന്നതും ഇഷ്ടമാണെനിക്ക് ഇലക്ട്രോണിക്ക് അങ്ങനത്തെ പതിപ്പുകളും വായിക്കുന്നത് ഇഷ്ടമാണ് ഞാൻ കൂടുതലും അച്ചടിച്ച പുസ്തകങ്ങൾ വായിക്കാനാണ് ശ്രമിക്കാറ് ഓഡിയോ ബുക്കുകൾ കേട്ടിട്ടുണ്ട് പക്ഷെ അതിനേക്കാളും കേൾവിയെക്കാളും മനസ്സിൽ എന്നെ സംബന്ധിച്ചടുത്തോളം എൻ്റെ ഫീലാണ് വേറൊരാളുടേയും അല്ല എനിക്ക് ഓഡിയോ കേൾക്കുന്നതിനേക്കാളും എനിക്ക് എൻ്റെ മനസ്സിൽ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചു വയ്ക്കുക എന്നു പറഞ്ഞത് ഞാനായിട്ട് വായിക്കുന്ന വരികളാണ് ഞാനായിട്ടു വായിക്കുമ്പോൾ ഏതൊരു കഥയും എടുത്തോട്ടെ രാമായണം എടുത്തോട്ടെ രാമായണം എന്ന കഥ വാത്മീകിയുടെ രാമായണം എല്ലാ ഭാഷയിലും പതിപ്പുകൾ ആക്കിയിട്ടുണ്ട് അത് ഓഡിയോ ആയിട്ട് കേൾക്കുന്നതും നമ്മളായിട്ട് വായിക്കുന്നതും രണ്ടും ഡിഫ്ഫറെൻസ് ഉണ്ട് അത് നമ്മളായിട്ട് വായിക്കുമ്പം നമ്മൾ ആ കഥയിലൂടെ ആ ഒരു സന്ദർഭത്തിലൂടെ സഞ്ചരിക്കുന്ന പോലെയൊക്കെ ആ ഒരു ഫീലാണ് എനിക്ക് സിനിമ കാണുമ്പം നമ്മൾ ആ കഥയിലൊരു കഥാപാത്രമായി മാറുന്നു സീരിയൽ കാണുമ്പം അതേപോലെത്തന്നെ അങ്ങനെയാണ് എന്നെ വായിക്കുന്ന വായിക്കുന്നതിനെ നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പം നമ്മുടെ വായനയുടെ ശൈലി നമ്മുടെ വായന വളരെ നല്ല രീതിയിൽ ആവാൻ സഹായിക്കും നന്നായി വായിക്കുന്നൊരു വ്യക്തി വായിച്ചാൽ വളരും വായിച്ചില്ലെങ്കിൽ വളയും അങ്ങനെയെന്തോ കുഞ്ഞുണ്ണി മാഷിൻ്റെ എന്തോ ഉണ്ട് കൃത്യമായിട്ട് എനിക്ക് വലിയ ഓർമ്മ ഇല്ല അങ്ങനെയൊരിതുണ്ട് അപ്പം വായിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഓഡിയോ ക്ലിപ്സ് കേൾക്കുന്നതിനേക്കാളും ഞാൻ ആഗ്രഹിക്കുന്നത് ഞാനൊരു ബുക്ക് വായിക്കുന്നതാണ് എത്ര സമയം അതിനുവേണ്ടി മാറ്റി വച്ചാലും ഒരു ബുക്ക് വായിക്കുന്നതിൻ്റെ സന്തോഷം അതൊന്നു വേറെ തന്നെയാണ് കേട്ടോ